ഞാനിവിടെ വീട്ടില് ചെടികളും പച്ചക്കറികളും അങ്ങൻത്തക്കെ ഉണ്ടാക്കണ ആളാണ് പക്ഷേ ഒരു സാധനം ഉണ്ടാക്കാന് കൊതുകും പിന്നെ കോയിക്കളും അങ്ങനൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ അതിനുള്ള വളം അതൊക്കെ നമ്മളിടുമ്പോള് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മള്ക്കുണ്ടാവും പിന്നെ ചാണകവും പിന്നെ ഈ കടലപിണ്ണാക്കുമൊക്കെ ചേര്ത്ത് മിക്സ്സെയ്ത്കാണ്ട് ബക്കറ്റിലൊരു പതിനഞ്ച് ദിവസം വച്ചതിന്റെശേഷം അത് ആണ് ചെടിക്കൊക്കെ പാര്ന്ന് ഒഴിച്ചുകൊടുക്കുക അപ്പോള്പ്പിന്നെ അതിന്റേതായിട്ടുള്ള ആ വാസനയും ഇതും ഒക്കെ നല്ലോം ഉണ്ടാകും പിന്നെ കോയിക്കള് പിന്നെന്ത് സാധനം ഉണ്ടാക്കിയാലും അതൊക്കെ ഇങ്ങോട്ട് വന്ന്കാണ്ട് മാന്തിയിട്ടിങ്ങോട്ട് ഇതാക്കും ആകെ എന്നിട്ടിതാക്കും ആടുകളുണ്ട് ആടുകളൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ തിന്നാനായിട്ടും ഒക്കെ ഒരു വരും പിന്നെയിപ്പോള് എവിടെയെങ്കിലും പോവ്വാണെങ്കിലൊക്കെ തന്നെ ചെടിക്ക് വെള്ളം നനച്ചുകൊടുക്കാനും അതിനും ഒക്കെ കുറച്ച് ദിവസം ആവുമ്പോള്ത്തന്നെ അതൊക്കെ വാടി ഉണങ്ങി പോവും പിന്നെ ചെടിക്ക് കാര്യമായിട്ട് നമ്മള് അത്മ്മേക്കെ ഇട്ടുകൊടുത്ത് നല്ലവണ്ണം നോക്കിയാലൊക്കെ നല്ല ഭംഗിയും രസവുമൊക്കെ കിട്ടും പിന്നെ അത് അതിന് പിന്നെ നമ്മള് നല്ലോണം വളക്കൂറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് മണ്ണൊക്കെ ഇതാക്കി ചെടിക്ക് ഇതാക്കി ഇട്ടൊക്കെ കൊടുത്താല് നല്ല പൂവും ഇതൊക്കെ ഉണ്ടാവും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെടികളും ഈ കൃഷികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കില് അതൊക്കെ ഉണ്ടാക്കും അത് നനച്ചുകൊടുക്കാനും അതിനൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്